ഞാൻ ആദ്യമൊന്നും അധികം നൃത്ത മത്സരങ്ങളില് പങ്കെടുത്തിട്ട് ഉണ്ടായിരുന്നില്ല പണ്ടൊക്കെ സ്കൂളില് പഠിക്കുന്ന സമയത്ത് അവിടെ ഓരോരോ പരിപാടി ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ പരിപാടികൾക്ക് കളിക്കുമെന്നല്ലാണ്ട് മത്സരത്തിനൊന്നും ഞാൻ ഇന്നേ വരെ പോയി കളിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഞാന് കോളേജ് എത്തിയ സമയത്ത് ഇവിടെ കുറെ ബാക്കിയുള്ള കോളജസിൽ നിന്നൊക്കെ വിളിച്ചിട്ട് കുറെ അധികം മത്സരങ്ങള് നടത്താൻ തുടങ്ങി അപ്പം അതിനുണ്ടാകുന്ന ഒരു മത്സരാണ് ഈ സംഘ സംഘനൃത്തം എന്നുള്ളത് ഒരു ഒരു മത്സരമായിരുന്നു അപ്പം അതിനൊക്കെ ഞാൻ പങ്കെടുക്കാൻ തുടങ്ങി ഞാൻ ആദ്യമായിട്ട് പങ്കെടുത്തിട്ടുള്ളൊരു മത്സരം എന്ന് പറയുമ്പോൾ നൃത്തത്തിൻ്റെ ഒരു സിൻക്രൊണൈസേഷൻ എന്ന് പറയുന്നൊരു നൃത്തമാണ് അതായത് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന രണ്ട് പേരും ഒരേപോലെ കളിക്കണം അപ്പം അത് കളിച്ച സമയത്ത് എനിക്കും എൻ്റെ കൂടെ കളിച്ച കുട്ടിക്കും ഞങ്ങൾക്ക് രണ്ട് പേർക്കും രണ്ടാം സ്ഥാനം കിട്ടി അപ്പോൾ ഞങ്ങള് രണ്ട് പേരും കളിച്ച സമയത്ത് ഒരേപോലെ ഉണ്ടായിരുന്നു ഞങ്ങൾ കളിക്കുന്നത് കാണാൻ അതായിരുന്നു ഞാൻ എൻ്റെ കോളേജിൽ വന്നിട്ട് ആദ്യമായിട്ട് ഒരു ആദ്യമായിട്ട് പങ്കെടുത്ത ഒരു നൃത്ത മത്സരം എന്ന് പറയുമ്പോൾ ഞങ്ങള് ഈ ഡാൻസ് കളി ഈ ഒരു നൃത്തം കളിച്ചതിൽ പിന്നെ ആണ് ഞങ്ങൾക്ക് ബാക്കിയുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാൻ ഒരു ആവേശവും അതിന് ഒരു ആത്മ ഒരു ആത്മവിശ്വാസമൊക്കെ വന്നത് ഇനിയും എനിക്ക് വല്ലതിലും പങ്കെടുക്കാൻ താൽപ്പര്യം ഉണ്ടോന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ഈ ഒരു ഇനത്തില് പങ്കെടുക്കണമെന്നൊന്നും ഇല്ല പക്ഷേ ഇനി ഈ കോളേജിലേക്ക് വരുന്ന കോളേജില് ഉണ്ടാവുന്ന എല്ലാ തരം മത്സരത്തിലും പങ്കെടുക്കണമെന്നാഗ്രഹമുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ കലോത്സവം വരുന്നുണ്ട് അപ്പം കലോത്സവത്തിലും പറ്റാവുന്ന എല്ലാ നൃത്ത മത്സരത്തിലും എല്ലാത്തിലും ഒന്നും പറ്റില്ലെങ്കിലും ഏതെങ്കിലും ഒരെണ്ണത്തിലെങ്കിലും പങ്കെടുക്കണമെന്നെനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇതിലൊക്കെയാണ് പങ്കെടുക്കാൻ എനിക്കാഗ്രഹം ഞാൻ ഇത് വരെയ്ക്കും പങ്കെടുത്തിട്ടുള്ള എല്ലാ നൃത്ത മത്സരങ്ങളും നല്ല രസമുണ്ടായിരുന്നു അത് കളിക്കുമ്പം തന്നെ നമുക്ക് നല്ല സന്തോഷം കളിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ബലം പറയുമ്പം തന്നെ റിസൾട്ട് പറയുമ്പം തന്നെ റിസൾട്ട് പറഞ്ഞിട്ട് നമ്മൾ അറിയുമ്പം തന്നെ നമുക്ക് നല്ല സന്തോഷമായിരിക്കും